വലിയ മത്സ്യത്തെ കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവിശ്യം ചൂണ്ട ഇടും ഇട്ടപ്പോൾ ചൂണ്ട കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയാതായി ഞങ്ങൾ കരുതി എന്നാൽ ചൂണ്ട ഒരിക്കലും കണ്ണിൽ കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയത് ആയിരുന്നില്ല അത് കണ്ണൻ മീൻ എന്നു പറയുന്ന വലിയൊരു തരം മീനുണ്ട് തോടുകളിൽ മീൻ ഇപ്പോൾ സാധാരണ ചളികളിനുള്ളിലാണ് കിടക്കാറ് എന്നാൽ അന്ന് അത് കല്ലിൻ്റെ ഇടയിൽ ഒരു വലിയ ഒരു മീൻ ഉണ്ടായിരുന്നു അതായിരുന്നു ആ ചൂണ്ടയെ കല്ലിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോയത് ഇതറിയാതെ അതിൻ്റെ വായിൽ ചൂണ്ട ചൂണ്ടയ്ക്ക് ചൂണ്ടയുടെ കുരുക്ക് കുരുങ്ങുകയും അത് കല്ലിൻ്റെ ഇടയിൽ പെടുകയും ചെയ്തു അങ്ങനെയൊരു അങ്ങനെ ഒരുവട്ടം ഞാൻ എടുത്ത സമയത്ത് വലീയൊരു മീനിനെയാണ് കിട്ടിയത് രണ്ട് കിലോവോളം വരുന്ന ആ വലിയൊരു മത്സ്യമായിരുന്നു അത് ചൂണ്ട വലിച്ച സമയത്ത് ചൂണ്ട പൊട്ടുകയും ആ സമയത്ത് ഞാൻ അതിനെ ചാടി പിടിക്കുകയും ചെയ്തിരുന്നു അന്ന് ചൂണ്ട പൊട്ടിയിരുന്നു പൊട്ടിപ്പോയിരുന്നെങ്കിൽ വലിയ സങ്കടം ആയേനെ എന്നാൽ മീനിനെ എനിക്ക് ലഭിച്ചു ഞാൻ അതു വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ഞങ്ങൾ കുറച്ച് ഞങ്ങളെ പരിസരവാസികൾക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു നല്ല അതു ടേസ്റ്റ് ഉള്ള മീൻ ആയിരുന്നു ഞങ്ങളുടെ നാടുകളിൽ അതിനെ കണ്ണൻ മീൻ എന്നു പറയുകയും പറയും നല്ല സന്തോഷമുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു എനിക്ക് ഞങ്ങൾ സ്ഥലങ്ങളിൽ എല്ലാർക്കും മീൻ നൽകി അന്ന് മീൻ ലഭിക്കുകയും എനിക്ക് ഒരു മീൻ പോലും ലഭിച്ചിരുന്നില്ല എന്നാൽ അന്ന് കിട്ടിയതിൽ ആ ഒരു മീനിനെ ആ ആ ഒരു മീനിനെ ഏറ്റവും വലിയ മത്സ്യം എനിക്ക് ആയിരുന്നു ചില ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടാറുള്ളത് വലയിടുമ്പോൾ ആമയേയും ഞണ്ടുകളെയും കിട്ടുമ്പോഴായിരുന്നു